ഞങ്ങളുടെ ഇവിടെ കളിക്കാനായിട്ട് വലിയ സ്ഥലങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്തെന്നു വച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം എവിടെയെങ്കിലും കളിക്കാൻ പോകണമെങ്കിൽ തന്നെ ടർഫിലോ അതായതിപ്പം ഇവിടുന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് മാനന്തവാടിയ്ക്ക് മാനന്തവാടിയാണ് ടർഫ് ഉള്ളത് അപ്പോൾ ഇവിടത്തെ പിള്ളേരൊക്കെ കളിക്കാൻ പോവുന്നെന്ന് വച്ചു കഴിഞ്ഞാൽ ടർഫിലാണ് അപ്പോൾ അവർ വൈകുന്നേരം ഒരു ഏഴ് മണിയാവുമ്പോൾ കളിക്കാൻ പോയിട്ട് അവിടെയാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ വച്ചിട്ട് പതിനൊന്നാളാണ് ഒരു എന്താ പറയുക നമ്മൾ മൊത്തം ടോട്ടൽ വേണ്ടത് അങ്ങനെ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപേന്റടുത്ത് വരും മൊത്തം ടോട്ടൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എങ്ങാണ്ട് കളിക്കാൻ ഒന്നര മണിക്കൂർ കളിക്കുന്നതിനെങ്ങാണ്ട് അപ്പോൾ അതിലും നല്ലത് നമുക്ക് ഇവിടെ തന്നെ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെത്തന്നെ കളിക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് കാരണമെന്തെന്ന് വച്ചു കഴിഞ്ഞാൽ അത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി വിളിച്ചിട്ട് വേണം നമ്മൾ പോകുവാൻ രാത്രിയായിക്കഴിഞ്ഞാൽ വണ്ടി ഉണ്ടാവില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം നമ്മൾ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവർ റെഡിയാക്കിത്തരാമെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവർ എന്താ പറയുക അപ്പോൾ ആ ഗ്രൗണ്ട് ഒക്കെ റെഡി ആക്കിത്തരാം നമുക്ക് ഒരു ദിവസം ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇവരുടെ ഒരു അഭിപ്രായം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ആൾക്കാർ എല്ലാവരും കളിച്ച് വലിയൊരു നിലയിൽ എത്താൻ വേണ്ടിയിട്ട് നാട്ടുകാരടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾക്ക് ആ ഗ്രൗണ്ട് വൃത്തിയാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്